ഹലോ എടാ ഇപ്പം പിന്നെ ഐ എസ് എല്ലിൻ്റെയൊക്കെ സീസണല്ലേ അപ്പം ഞാൻ കുറച്ച് സംശയമൊക്കെ ചോദിക്കാൻ വിളിച്ചതായിരുന്നു ആ ആ ഫുട്ബോളിനെപ്പറ്റി അറിയുമോ എനിക്കിപ്പം ഫുട്ബോളിനോടുള്ള വലിയ താൽപര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയത്തില്ല അപ്പം എന്തെങ്കിലും എനിക്ക് ഇപ്പം ഈ ഫുട്ബോളിന് ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ ഞാൻ കാണും പക്ഷെ എന്നാൽ കൂടുതലും അതിൻ്റെ റൂൾസ് ഒന്നും എനിക്ക് അങ്ങനെ അറിയത്തില്ല അപ്പം എങ്ങനെയാണെന്നൊന്നും അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നു പറയാമോ

ആ ആ ഐ എസ് എൽ എന്നു പറഞ്ഞാൽ കേരള ഇന്ത്യലുള്ള എല്ലാ ടീമും ഉണ്ട് മറ്റേത് വേൾഡ് വൈഡ് ആ ആ ഓക്കെ ഓക്കെ അപ്പം എൻ്റെ ഒരു സംശയമേ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഓരോ ഓരോ ഇതുണ്ടല്ലോ ഓരോ ടീമ് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുപറയുമ്പോൾ കേരളത്തിലുള്ളവർ മാത്രമേ ഉള്ളോ അതോ ഡൽഹിയിൽ നിന്ന് ഉള്ള കളിക്കാരാണെങ്കിലും നമുക്ക് കളിക്കാൻ പറ്റുമോ അതോ പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റുമോ അതെങ്ങനെയാണ് കാര്യങ്ങൾ അത് ഓ ഓ ഓ ആ ആ ആ ആ മ് മ് ഞാൻ ആദ്യം ഓർത്തുകൊണ്ടിരുന്നത് അതെ ഞാൻ ഓർത്തുകൊണ്ടിരുന്നതേ ഇപ്പം കേരളത്തിൽ ഉള്ളവർ കേരളത്തിൽ മാത്രമേ കളിക്കാൻ പറ്റുള്ളു അങ്ങനയേ ഓർത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പുറത്തുനിന്നൊക്കെ കൊണ്ടുവരാമെന്ന് ഉള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലാവുന്നത് പിന്നെ ഇന്ന് കളി ഉണ്ടോ നീ ഏത് ടീമാണ് നീ എന്താ കേരള കളി മോശം ആയോ ആ പിന്നെ

എന്താ പറഞ്ഞേ കേട്ടില്ല ഹലോ

ഐ എസ് എല്ലിലോ ഫിഫയിൽ എനിക്ക് അങ്ങനെ ഞാൻ ഇങ്ങനെ ഫുട്ബോളൊന്നും അങ്ങനെ കാണാറില്ല അപ്പം എന്നിക്കങ്ങനെ ചോദിച്ചാൽ ഇന്ന ടീമെന്നൊന്നും ഇല്ല എല്ലാ ടീമും ഇഷ്ടമാണ് പിന്നെ ഇങ്ങനെയൊക്കെ

ആ ഞാൻ ആ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇവരെയൊക്കെ ഇവർ ഇവർ മൂന്നുമാണ് മെയിന് എന്നൊക്കെ കേട്ടിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഫുട്ബോളിനെക്കാളും കൂടുതലിഷ്ടം ക്രിക്കറ്റാണ് അപ്പം ഫുട്ബോളിനോട് അത്രയും ഇൻ്ററസ്റ്റ് കൊടുത്തിട്ടില്ല പക്ഷെ ഇപ്പോൾ എനിക്ക് പതുക്കെ പതുക്കെ ഇൻ്ററസ്റ്റ് ആയി വരുന്നുണ്ട് അപ്പം ഫേമസ് ഫേമസ് കളിക്കാർ റൊണാൾഡോ മെസ്സിയൊക്കെ ആണെന്നൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ അറിയാം ഓക്കെ ആ ഓക്കെ ടാ